സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് വലിയൊരു പങ്കു തന്നെയാണ് ഉള്ളത് മാതൃഭാഷയിൽ നിന്നും ഒരു കുട്ടി അകലുമ്പോൾ സ്വന്തം സാംസ്കാരിക പൈതൃകത്തിൽ നിന്നും കൂടിയാണ് അവൻ അകറ്റപ്പെടുന്നത് എന്ന് പറയാം ഇത് നേരത്തെ മനസ്സിലാക്കിയ നമ്മുടെ രാഷ്ട്രപിതാവ് പ്രാദേശിക ഭാഷകളെ പരിഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠനത്തിനു വേണ്ടി പരക്കം പായുന്ന അവസ്ഥയെ അതിരൂക്ഷമായി വിമർശിച്ചത് ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഏകാധിപതിയുടെ അധികാരത്തോടെ അദ്ദേഹം നമ്മുടെ ബാലികാ ബാലകന്മാരുടെ ഒരു വിദേശ പഠനത്തിന് മാറ്റുന്ന സമയം പ്രാദേശിക ഭാഷ അടിസ്ഥാനത്തിൽ ആക്കാൻ അദ്ദേഹം ഉത്തരവിട്ടേനെ മാതൃഭാഷ ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ മാതൃഭാഷ അറിയണമെന്നില്ല അതുകൊണ്ട് അത് അറിയാത്തത് വളരെ അഭിമാനത്തോടുകൂടിയാണ് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല മാതൃഭാഷയെ സ്നേഹിക്കുന്ന മലയാളികൾ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് ഒരു രാജ്യത്തിൻ്റെ യുവജനങ്ങളുടെ മേൽ ഈ വിദേശ ഭാഷയെ വച്ചു കെട്ടി അവരുടെ പ്രതിഭ ആകെ നശിപ്പിക്കുക എന്നതാണ് വിദേശ ഭരണം ഇവിടെ വരുത്തിയ പല നയങ്ങളിലും ഏറ്റവും വലിയ ഒന്നാണത് ദശാബ്ദ വർഷങ്ങൾക്കു മുമ്പ് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് അതെന്താണെന്നല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ ബോധം മാധ്യമം തന്നെ മാതൃഭാഷയാണ് പ്രാധാന്യം നൽകി പല കുറി പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നത് സ്വന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെയും സാംസ്കാരിക സൃഷ്ടിക്കും ഉൽ ഉതകണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഇത്തരം നിലപാടുകളിൽ കാണുന്നത് എന്നാൽ അത്യാധുനിക സാങ്കേതികവിദ്യയുടെ പിൻബലവുമായി വിദേശ കുത്തകകൾ മാധ്യമ രംഗത്തും മറ്റും കടന്നുകയറ്റത്തിൻ്റെയും ഫലമായി സ്വയം രൂപപ്പെടാത്ത മറ്റുള്ളവയെ അനുകരിക്കാൻ അല്ലേ ഇന്ന് വെമ്പൽ കൊള്ളുന്നത് മുൻപേ നടന്നു കൊണ്ടിരിക്കുന്നതിനേക്കാൾ പിന്നാലെ ഓടുന്നതിനാണ് എല്ലാവർക്കും ഇഷ്ടം മാതൃഭാഷയിൽ നിന്നും അകലാൻ ഉള്ളതല്ല അടുക്കാനുള്ളതാണ് മനുഷ്യന് ഇന്ന് ഓരോ വ്യക്തിത്വവികാസത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളുടെ രൂപപ്പെടലിനും മാതൃഭാഷ അനിവാര്യമാണ് മാതൃഭാഷ ഒഴിച്ചൊരു കാലം നമ്മൾക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന എല്ലാ ഇടങ്ങളിലും മാതൃഭാഷ ഒന്നാം ഭാഷയായി തന്നെ മുന്നോട്ടു വരണം അതിനൊരു സെറ്റിംഗ്സിലും അതുപോലെ തന്നെ അതിൻ്റെ ഭാഷയായിട്ട് തെരഞ്ഞെടുക്കേണ്ടതും മലയാളമാണ് അതിപ്പോൾ എ ടി എമ്മിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ പി സി കമ്പ്യൂട്ടർ പി സി യിലാക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ആപ്പുകൾ മൻ നമ്മളുടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആപ്പുകളായിക്കോട്ടെ നമ്മുടെ മലയാളഭാഷ തന്നെ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറ നമ്മടെ ഭാഷയെ അയക്കാതിരിക്കണം ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ആദ്യം നമ്മുടെ ഭാഷയ്ക്ക് അതായത് മലയാളഭാഷയ്ക്ക് ആയിരിക്കണം ആദ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്നാം ഭാഷ മലയാളഭാഷയായി തന്നെ പഠിപ്പിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്നു വെച്ചു കഴിഞ്ഞാല് സേവന മേഖലകളില് അപേക്ഷ ഫോം ഫിൽ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ വേണ്ട മലയാളഭാഷയിൽ തന്നെ അപേക്ഷ ഫോം എല്ലാം ഫിൽ ചെയ്യുക അന്നേരം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല